ഇത് ഫിഷ് മാർക്കറ്റല്ലേ ആ ഇത് എൻ്റെ പേര് ദുർഗ്ഗയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ രാമവർമ്മപുരാണ് അപ്പോൾ ഇങ്ങള് ഹോം ഡെലിവറിയുണ്ട് കേട്ട് വിളിച്ചതാണ് ആ അപ്പോൾ നിങ്ങൾ ഏതെല്ലാമാണ് ഉള്ളത് അവൈലബിൾ ഏതെല്ലാമാണ് ആ അത് കുഴപ്പമില്ല നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് വേണ്ടിയാണ് ഓർഡറ് ചെയ്യുന്നത് ങെ ആ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒരു ഒരു മാസത്തേക്കുള്ളത് ഓർഡറ് ചെയ്യണന്നാണ് നമ്മൾ ഒരു മാസേ ഉള്ളൂ നാട്ടിൽ ആ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പറ ഐസിട്ട് വെക്കുന്നതോ പഴയതൊന്നും ആയിരിക്കില്ലല്ലോ അല്ലേ ആ ആ അതന്നെ ആ നമ്മൾ അങ്ങനെ നോക്കി വിളിച്ചത് തന്നെ ആണ് നമ്മളോട് ഒരാൾ സജസ്റ്റ് ചെയ്ത സജസ്റ്റ് ചെയ്തതാണിത് ഇപ്പോൾ ഇങ്ങനെ നല്ല ഫ്രഷായിട്ട് കൊടുക്കുണ്ടൂന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്തതാണ് ഞങ്ങളുടെരു ഫ്രണ്ട് ആ ഇപ്പം ഇപ്പോൾ നമ്മളൊരു അഞ്ച് വെറൈറ്റി മീൻ ദിവസവും എത്തിക്കാൻ പറ്റോന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം കുറെ മെമ്പർ ആ പിന്നെ എന്നാ വെച്ചാൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തതായിരിക്കോ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളിവിടെ ആ കുട്ടികൾക്കൊക്കെ അയഡിൻ കണ്ടൻറ്റൊക്കെ വളരെ കുറവാണ് അപ്പോൾ നല്ല മീനന്നെ ആയിരിക്കൂലേ എന്തായാലും അതെ അല്ലേ അതെ ഓക്കെ ഓക്കെ അപ്പോൾ ആ അപ്പോൾ ഇങ്ങനെ നമ്മൾ അഥവാ ആ അതീ കൂടെ വരുവാണേ നമ്മൾ കളക്ട് ചെയ്ത് പോവുന്നോണ്ട് നിങ്ങൾക്ക് പ്രശ്നം ഒന്നും ഉണ്ടാവൂലല്ലോ അല്ലേ അതെ അല്ലേ അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ലൊക്കേഷൻ കാര്യങ്ങൾ ഈ നമ്പറേക്കന്നല്ലേ അയക്കേണ്ടത് ആ അതെ അല്ലേ പിന്നെ ആ എന്നാൽ പിന്നെ ഞാൻ എൻ്റെ ലൊക്കേഷൻ ഇതിലേക്ക് അയച്ചിടാം ഓക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ലാലോ ആ നാളെ മുതൽ തന്നെ ആയിക്കോട്ടെ ഓക്കെ ആയിക്കോട്ടെ ശരി ശരി ശരി ശരി ശരി ഓക്കെ ഓക്കെ ഓക്കെ ശരി